സർക്കാറിൻ്റെ ഉത്തരാവാദിത്ത ഉറപ്പാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തില് വളരെ പങ്ക് വളരെ വലുതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സറ് ഉത്തരവാദിത്തം വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാറിൻ്റെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് ഉളവാക്കുക അതിനെ വിചാരണ ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗത്ത് ഒരു ഫാൾട്ട് വരുമ്പം അതിനെ കുറിച്ച് വിചാരണ ചെയ്യുമ്പോഴാണ് അല്ല അതിന് പ്രത്യേക സമുദായായിട്ടുണ്ട് അത് പ്രതിപക്ഷം എന്നുള്ള രീതിയില് ഒരു ജനലുണ്ടാവും പിന്നെ പൊതു ജനങ്ങള് എന്നുള്ള രീതിയിലുണ്ടാകും എന്തെങ്കിലുമൊരു മിസ്റ്റേക്ക് വരുമ്പോൾ ഒരു കാര്യങ്ങള് ചെയ്യാണ്ട് വരുമ്പോൾ അതിനെ വിചാരണ ചെയ്യും അതെന്താണ് അത് അതിനെ കുറിച്ച് വ്യക്തത തേടും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടതിൻ്റെ വിവരങ്ങൾ ഉ ജനങ്ങളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെ ഇടയ്ക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികളും അതൊക്കെ മേൽനോട്ട് മേൽനോട്ടം പോലായിട്ട് നോക്കുന്നുണ്ട് അതായത് ആ സ്വാതന്ത്യ്രമാണ് നമുക്ക് അറിയേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതാക്കിയ സ്വാ നമ്മള് ചെയ്ത് വോട്ട് ചെയ്ത് കയറ്റി വിട്ടവർക്കുള്ള എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇത് അവരുടെ ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ട് നിറവേറ്റുന്നുണ്ടോ അവരുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വളരെ വലുത് തന്നെ ആണ് അതിനാണ് ഇപ്പം പറഞ്ഞത് പോലെ പ്രതിപക്ഷം പോലത്തെ പിന്നെ സാധാരണ ജനങ്ങള് അത് അവരടുത്ത് ഒരു ഫാൾട്ട് വരുമ്പോൾ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യലും വരുത്ത് നല്ലതു വരുമ്പോൾ അതിനെ കുറിച്ച് കൈയ്യടിക്കുന്നതും ആ രീതി